പിന്നെ മെയിനായിട്ട് ഈ സീസണ് ഇപ്പം ഉള്ള സീസണാണ് ഈ മാർച്ച് സീസണുകൾ മെയിനായിട്ട് പക്ഷി നിരീക്ഷിക്കുമ്പോൾ വവ്വാല് തമ്മിലടി കൂടുന്നത് കാണാൻ പറ്റും കശുമാമ്പഴത്തിന് വേണ്ടിയുള്ളൊരടി കശുമാമ്പഴത്തിനും മാങ്ങാപ്പഴത്തിനും തമ്മിലുള്ള വലിയ അടി തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒച്ച ഇങ്ങനെ അങ്ങനെ ഒരെണ്ണം വന്ന് നമ്മളുടെ കണ്ണിന് മുമ്പില് വെച്ച് പേടിച്ച് ഓടിയിട്ടുമുണ്ട് അതാണ് പക്ഷി നിരീക്ഷണത്തിൽ മെയിനായിട്ടുണ്ടായ ഒരു അഭിനയം എന്ന് പറയുന്നത് ആ ശ്ശെ ഒരു രസകരമായ രസകരമായ ഒരു സംഭവം അത് നിരീക്ഷണ സമയത്തല്ല അല്ലാണ്ടിങ്ങനെ പുറത്തിറങ്ങിയ സംഭവിച്ചതാണ് വേറെ രസകരമായ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല അതാണ് മെയിനായിട്ടുള്ള സംഭവം പിന്നിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവ തമ്മിൽ അടി കൂടുന്നത് പഴത്തിന് വേണ്ടിയുള്ള സംഘർഷം അതിൻ്റെ സൗണ്ടുകളിങ്ങനെ ഇടയ്ക്കിടെ മുഴങ്ങി മുഴങ്ങി കേൾക്കാം പൂച്ച അടി കൂടുന്ന സൗണ്ടുവായിട്ട് താരതമ്യേന സാമ്യമുള്ള സൗണ്ടാണ് വവ്വാലുകൾ തമ്മിൽ അടി കൂടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ഏതാണ്ട് ഒരുപോലെ ഇരിക്കും കീ കീന്ന് പറഞ്ഞുള്ള സൗണ്ട് കേൾക്കാം അതാണ് മെയിനായിട്ടുള്ള സംഭവം പിന്നെ പകല് നിരീക്ഷിക്കുകയാണേൽ സന്ധ്യക്ക് നിരീക്ഷിച്ച് കാക്ക കുത്തനെ ഒടിച്ചിട്ടുണ്ട് കാക്ക കൂട്ടിൽ കല്ലെറിഞ്ഞിട്ട് അത് വേറെത്തന്നെ നിരീക്ഷണം മെയിനായിട്ട് വവ്വാലുകളുടെ അടി അതിൻ്റെ ഇടയിൽ പറന്നു വന്നൊരു വവ്വാല് കണ്ണിൻ്റ അടുത്ത് കൂടെ പോയി പോയി പേടിച്ചിട്ടുണ്ട് അതാണ് മെയിനായിട്ട് നടന്നിട്ടുള്ള പക്ഷി നിരീക്ഷണത്തിലെ ഒരു സംഭവം എന്ന് പറയാനുള്ളത്